കൃഷിക്കായി ഒത്തിരി ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിൽ എന്താ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് എന്താ ഒരോന്നോരോന്നിട്ടെടുത്ത് പറയുകയാണെങ്കിൽ എന്താ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ കൃഷി നമുക്കേറ്റവും വിലപ്പെട്ട എൻ്റെ അത്യാവശ്യമൊരു കാര്യമാണ് കൃഷിയെന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഉപജീവനം പറ നമ്മൾ കഴിക്കാൻ കഴിക്കാനും പിന്നെന്താ അത്യാവശ്യത്തെ ആദായങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൃഷിയും കൃഷിപരമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ അപ്പം നമ്മൾ എന്താ ഒത്തിരിയേറെ പറയുക ഒത്തിരി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെന്താ തൂമ്പ പിന്നെന്നെ കൈക്കോട്ട് കൊട്ട പിന്നെൻ്റെ കത്രിക പിന്നെ പൂവിൻ്റെ ഇതൊക്കെ മുറിക്കാൻ വേണ്ടി കത്രിക പിന്നെ എന്തൊക്കെയാണ് കൈക്കോട്ട് പിന്നെന്താ അങ്ങനെ ഒത്ത അങ്ങനെ ഒട്ടനവധി കൃഷിയെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക കൃഷിയെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സാധനങ്ങൾ നമുക്ക് നമുക്ക് ജീവിതത്തിൽ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൃഷിയൊക്കെ എന്നു പറയുന്നത് നമ്മൾ കഴിക്കാൻ അതായത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് പച്ചക്കറിയും പിന്നെ കൃഷിയിൽ ഉൾപ്പെടുന്നതാണ് പൂക്കൾ പിന്നെന്താ ആദായപരമായി സംബന്ധിച്ച കാര്യങ്ങളാണ് എന്തൊക്കെണ് ആദായപരമായ കാര്യങ്ങൾ മറ്റേ ഏലക്ക കാപ്പി കുരുമുളക് പിന്നെന്താ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റായ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ പച്ചക്കറിയെന്നു വെച്ചു കഴിഞ്ഞാൽ തക്കാളി പിന്നെ മുളക് വെണ്ടക്ക കോവക്ക പിന്നെ അങ്ങനെ ഒട്ടനവധി ഇഷ്ടം പോലെ കൃഷി സാധനങ്ങളൊക്കെയുണ്ട് പിന്നെ നമുക്ക് കൂടുതലായി കൃഷിക്ക് ഉപ കൃഷിയിൽ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരങ്ങൾ ഉപകരണങ്ങളെന്നു വെച്ചു കഴിഞ്ഞാൽ തൂമ്പ കൈക്കോട്ട് പിന്നെ പിന്നെ മണ്ണ് മാന്തുന്ന സാധനം അങ്ങനെ ഇഷ്ടം പോലെ ഒട്ടനവധി തൂമ്പയെന്നു വെച്ച് നമുക്കുള്ള എന്ന കിളക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ കൈക്കോട്ടും അതൊക്കെ തന്നെയാണ് പിന്നെ മണ്ണ് മാന്തുന്നത് മറ്റേ ഇത് എന്താ മണ്ണ് മാന്തി കൊടുക്കുന്ന പിന്നെ നമ്മുടെ നെല്ല് നെല്ല് എന്താ ഇതൊക്കെയാണെങ്കിൽ നെൽ വയൽ ഇതാക്കാനൊക്കെയാണെങ്കിൽ ട്രാക്ടർ അങ്ങനെ ഒത്തിരി പിന്നെന്താ തേയില തേയില കൊണ്ടു പോകാൻ വേണ്ടി വണ്ടി അങ്ങനെ ഇഷ്ടം പോലെ ഒട്ടനവധി നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട് പിന്നെ കുരുമുളകൊക്കെ പറിക്കാനാണെങ്കിൽ ഏണി ഏണിയൊക്കെ വെച്ച് തെങ്ങു കയറാനും ഏണി അങ്ങനെ പല പല എന്താ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ കൃഷി ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൃഷി ആവശ്യങ്ങൾക്കുപയോഗിക്കുന്നുണ്ട് പിന്നെ

നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഉപജീവന മാർഗ്ഗം തന്നെയാണ് കൃഷിയെന്നു പറയുന്നത് കൃഷിയില്ലാതെ തന്നെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല അതായത് നമുക്ക് കേരളത്തിൽ കൃഷി ചെയ്യാതെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൃഷി ചെയ്തിട്ടാണ് നമ്മുടെ ഇടുക്കി എന്താ ഇടുക്കിയിലേക്കാണെങ്കിലും പല പല ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും അങ്ങനെയാണ് നമുക്ക് എന്താ ഓരോരോ സാധനങ്ങൾ കൊണ്ടു വരുന്നത് അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും തക്കാളിയാണെങ്കിലും എന്തൊക്കെ എന്നാ മുളക് അങ്ങനെ ഓ ഒട്ടനവധി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമുക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ അപ്പം പിന്നെ അതു പോലെ തന്നെ അത് ചെയ്ത അത് ഉപയോഗിക്കാൻ അതല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഒട്ടനവധി ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലേക്ക് എന്താ കടന്നു വരുന്ന എക്കണെ കൊണ്ടു വരുന്നുണ്ട് പുതിയത് പുതിയതായിട്ട് ഇറക്കുമതിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതൊന്നുമില്ല അതൊക്കെ പിന്നെ രാസവളങ്ങൾ വളങ്ങളൊക്കെ ഇഷ്ടം എന്താ ഏലത്തിനാണെങ്കിലും അടക്ക അല്ലേ ഇപ്പം പറഞ്ഞതൊക്കെ കൃഷി സാധനങ്ങൾക്കൊക്കെ ആണെങ്കിലും വളങ്ങൾ എന്താ കേരളത്തിലേക്കാട്ടിലും കൂടുതൽ പുറം നാടുകളിൽ നിന്ന് നമുക്കൊത്തിരി എത്തിച്ചു വരുന്നുണ്ട് പിന്നെ എന്താ പറയുക ഉപകരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉപകരണങ്ങൾ ചില ചില ചില കാര്യ ചില ചില സാധനങ്ങൾ നടാൻ വേണ്ടി തക്കാളി പിന്നെന്താ മുളക് വെണ്ടയ്ക്ക കോവയ്ക്ക അതൊക്കെ നടുകയാണെങ്കിൽ സെപ്റേറ്റ് വേറെന്തെങ്കിലും ഉപകരണങ്ങൾ അത് തൂമ്പ കൊണ്ട് പേടെടുത്ത അങ്ങനെയൊക്കെയാണ് നടുന്നത് പിന്നെ പിന്നെ അങ്ങനെ ഒട്ടനവധി ഒട്ടനേ ഇഷ്ടം പോലെ ഉപകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഒത്തിരി എടുത്ത് പറയാൻ തക്ക ഉപകരണങ്ങളൊക്കെയുണ്ട് അങ്ങനെ എന്ത് പറയാം എല്ലാം തന്നെ കൃഷി എല്ലാം തന്നെ കൃഷിക്ക് ഉപയോഗപ്പെടുന്ന ഓരോ ഓരോ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പിന്നെ ഒന്നിനെയും മാറ്റി തന ഒന്നതിനൊന്നും പറ്റത്തില്ല എല്ലാം നമുക്കിമ്പോർട്ടൻറ്റായ കാര്യങ്ങൾ മാത്രമേയുള്ളൂ